ഹലോ ഹലോ അവിടെ ഏതൊക്കെ തരം പൂക്കളുണ്ട്

അരളിപ്പൂ ഒക്കെയുണ്ടോ ഞങ്ങൾക്ക് കോളേജിലേക്ക് കുറച്ചധികം പൂ വേണമായിരുന്നു പൂക്കളമത്സരത്തിന് അതിനുവേണ്ടിയിട്ട് ചോദിച്ചതാ ഇവിടെ അടുത്ത് വേറെ കുറെ സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷേ എവിടെയും കണ്ടില്ല ഈ ഒരു പൂക്കട മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ അപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതിക്കാണ് വേണ്ടത് രാവിലെ ഒരു ഏഴുമണി ആകുമ്പോഴത്തേക്കും പൂക്കളെല്ലാം എത്തിക്കാൻ പറ്റുമോ ആ അപ്പോൾ നമ്മൾ പിന്നെ ക്യാഷ് നേരത്തെ അടക്കണോ അല്ലെങ്കിൽ അന്ന് തന്നാൽ മതിയോ ഞങ്ങൾക്ക് മുല്ല കുറച്ചധികം വേണമായിരുന്നു മുളത്തിന് എത്ര രൂപ ആ റോ മുല്ലക്ക് അല്ലേ റോസ ഏത് ഏതൊക്കേ കളറുകളാ ഉള്ളത്

ആ അതെയല്ലേ ആ ഓക്കെ അപ്പോൾ ഞങ്ങൾ എന്തായാലും വാങ്ങുന്നുണ്ട് അപ്പോൾ കോളേജിലേക്ക് പൂക്കളമത്സരത്തിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം പൂക്കൾ വേണം ഇരുപത്തിനാലാം തീയതി ആ രാവിലെ ഒരേഴുമണി ആവുമ്പോൾ ഏകദേശം ഒരു പത്ത് കളറ് കിട്ടാനുണ്ടാവുമോ ആ ആയിക്കോട്ടെ ഈ മുല്ലപ്പൂവും പിന്നെ ഈ വെള്ള കളറിലുള്ള തുമ്പപ്പൂവുണ്ടാവുമോ ആ ആ ആ ആയിക്കോട്ടെ എന്നാൽ ഇരുപത്തിനാലാം തീയതി രാവിലെ ഏഴുമണി ആകുമ്പോഴത്തേക്കും ഒന്ന് റെഡിയാക്കി തരണം കേട്ടോ

ആ ആയിക്കോട്ടെ നിങ്ങൾ എവിടെ കോളേജിൽ കൊണ്ടുതരുമോ പൂക്കൾ ആ ആയിക്കോട്ടെ ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം നിങ്ങളൊന്ന് വിളിച്ചാൽ മതി ആ ഓക്കെ എന്നാൽ മുല്ല ഒരു ഇരുപത് മുഴം

ആ ചെണ്ടുമല്ലി വാടാർമല്ലി പിന്നെ അങ്ങനെ ജമന്തി റോസ് അരളിപ്പൂവ് അത്രയും പൂക്കൾ വേണം പിന്നെ ബാക്കിയുള്ളതും കൂടി ആ ഓക്കെ എന്നാൽ ശരി